നമുക്ക് തൈക്കാൻ തുന്നലിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നൂലും അതിൻ്റെ ഉപകരണങ്ങളുമാണ് പക്ഷെ ആ നൂലുകൾ കൊണ്ട് നമുക്ക് നല്ല എംബ്രോയിഡറി വർക്കും അല്ലാതെ ഈ സാരിയിലൊക്കെ ആണെങ്കിലും സാരി ഇപ്പോൾ പിടിപ്പിക്കുന്നിടത്ത് ആണെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ പുതിയ മെഷീനുകളിൽ ആ വർക്ക് പോലെ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് സാരിപോൾ ഒക്കെ പിടിപ്പിക്കാൻ അത് എളുപ്പമാണ് പുതിയ മെഷിനിൽ അതിനെല്ലാം ഈ നൂലാണ് നമുക്ക് ആവശ്യം ആ മെഷീനിൽ നൂലും കൊണ്ട് എന്തും നമുക്ക് തൈച്ചെടുക്കാൻ എന്നാലും സാധിക്കും കുട്ടി ഉടുപ്പുകൾ തയ്ക്കാൻ നല്ല സുഖമാണ് ആ ഉടുപ്പേല് ഈ നൂല് കൊണ്ട് നമുക്ക് നല്ല വർക്കുകൾ ചെയ്യാം പുതിയ മെഷീനിൽ ഇതിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ കൊച്ചുമോൾക്ക് വേണ്ടിയിട്ട് ഈ കൊച്ചു കൊച്ചു വർക്കുകൾ ചെയ്തു കൊച്ചു കുട്ടി ഉടുപ്പുകളും മുട്ടറ്റം ഇറക്കമുള്ള ഉടുപ്പുകൾ തയ്ച്ച് അവർക്ക് കൊടുത്തതാണ് നല്ല രസമാണ് അത് ഇടാനായിട്ട് അ അതാണ് അവൾ കൂടുതലും ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെ നൂലുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം വർക്കുകൾ പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഏ മുന്താണി കുറേ പൂവ് കൂടുതൽ പൂവ് പിടിപ്പിക്കണമെങ്കിലോ എന്ത് ആണെങ്കിലും നൂലാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ട് ഉപകരിക്കാൻ പറ്റുന്നത്